എത്ര തവണ അടുത്തുള്ള ഗ്രാമങ്ങളില് പട്ടണങ്ങള് സന്ദർശിക്കാറുണ്ടന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും മിനിമം എങ്ങനെ പോയാലും ഒരു ഒരാഴ്ചയില് രണ്ടുമൂന്നു ദിവസമെങ്കിലും ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവേണ്ടിവരും എന്തെല്ലാവശ്യങ്ങളെന്ത് ആവശ്യങ്ങളെന്നു പറയുമ്പോള് പലത് കാണുമല്ലോ വീട്ടാവശ്യങ്ങൾക്ക് പുറത്തുള്ളാവശ്യങ്ങൾക്ക് സ്കൂളീലാവശ്യങ്ങൾക്ക് മക്കളുടെ ആവശ്യങ്ങൾക്ക് അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ പോയാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസമെങ്കിലും പുറത്ത് ഒരാഴ്ചയിലിപ്പോള് പോവേണ്ടിയായിട്ട് വരാറുണ്ട്